ഉച്ചയൂണിന് അയില മീൻകറിയാണ് ഉണ്ടാക്കാറുള്ളത് അയില കുറച്ച് ഫ്രൈ ചെയ്യാനും കറി വയ്ക്കാനും വേണ്ടിയിട്ട് രണ്ടും കുറച്ച് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വയ്ക്കുക കുറച്ച് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലെ കടുക് ഇട്ട് കുറച്ച് ഉലുവ ഇട്ട് അത് നന്നായി പൊട്ടി വരുമ്പോൾ രണ്ട് മൂന്നാല് കറുവേപ്പില എടുത്തിട്ട് അതില് കുറച്ച് മുളകും ഏഡ്ഡ് ചെയ്തിട്ട് നന്നായിട്ട് നേരത്തെ നമ്മൾ നേരത്തെ അരച്ച് വച്ച തേങ്ങയുണ്ട് അതുംകൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിക്കൊടുത്ത് അതിൻ്റെകൂടെ പുളി പിഴിഞ്ഞ് ഉള്ളത് പുളി പിഴിഞ്ഞത് ഒന്ന് ഏഡ്ഡ് ചെയ്ത് കൊടുത്ത് അത് നന്നയിട്ടൊന്ന് ഇളക്കിക്കൊടുത്ത് അതിൻ്റെ കൂടെ ഒര് രണ്ട് മൂന്നാല് തക്കാളി കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അടച്ച് വയ്ക്കുക അടച്ച് വച്ച് അത് ഒന്ന് തിളയ്ക്കാൻ ആകുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഒന്ന് മിക്സ് വയ്ക്കാൻ വേണ്ടിയിട്ട് അതില് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഏഡ്ഡ് ചെയ്തിട്ട് അത് ഫ്രൈ ചെയ്യാൻ വേണ്ടി വയ്ക്കുക പിന്നത് കറീൻ്റെ തിളച്ച് വരുമ്പോൾ അതിലോട്ട് മീന് ഏഡ്ഡ് ചെയ്യുക മീന് ഏഡ്ഡ് ചെയ്തിട്ട് നന്നായിട്ടതിനൊന്ന് തിളച്ച് വരുമ്പോൾ ആ ഒര് മണം വരും അപ്പോൾതന്നെ അത് ഒരു ആയിട്ടുള്ള വെന്തിട്ടുള്ള ആ ഒര് മണമായിരിക്കും അപ്പോൾ അതിനെത്തന്നെ നമ്മൾ ഇറക്കി വയ്ക്കുക ഉച്ചയൂണിന് അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ മീൻ കറിയും അത് ഫ്രൈ ചെയ്തതും പിന്നെ ഒരു പപ്പടവും പിന്നെ ഇച്ചിരി അച്ചാറും ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് അത്താഴത്തിന് എന്താ ഉണ്ടാക്കുകയെന്ന് പറഞ്ഞാൽ ചിക്കൻ ഉണ്ടാക്കാറുണ്ട് അത്താഴത്തിന് ചിക്കനാണ് ഉണ്ടാക്കാറുള്ളത് ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ട് അത് ഒന്ന് മാറ്റി വച്ചിട്ട് കുറച്ച് ഒരു പാത്രത്തിൽ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ ചിക്കനിൽ പുരട്ടിക്കൊടുത്ത് കുറച്ച് അങ്ങ് ഒരു പത്ത് മിനിറ്റ് അത് മാറ്റി വയ്ക്കുക മാറ്റി വച്ചിട്ട് വേറൊരു പാത്രത്തില് കുറച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് സവാള അരിഞ്ഞത് നന്നായിട്ട് വഴറ്റിക്കൊടുത്ത് കുറച്ച് തക്കാളി അരിഞ്ഞത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മള് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി മിക്സ് ചെയ്ത ഉണ്ടാവും മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക അത് അടിച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുക പേസ്റ്റ് ആക്കിയിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്താൽ അതിനുള്ള സാധനങ്ങളൊക്കെ ഏഡ്ഡ് ചെയ്തുകൊടുക്കുക കാരണം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻപൊടി കുരുമുളക് പൊടിയൊക്കെ ഏഡ്ഡ് ചെയ്തിട്ട് ഈ ചിക്കനെ അതിലോട്ടൊന്ന് ജസ്റ്റൊന്ന് ഏഡ്ഡ് ചെയ്യുക ഏഡ്ഡ് ചെയ്തിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊടുത്ത് കുറച്ച് നേരം സിമ്മിൽ വയ്ക്കുക സിമ്മിൽ വച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ആ ആ വെള്ളത്തില് ആ ചിക്കൻ്റെ ആ വെള്ളത്തിൽത്തന്നെ കിടന്ന് വേകും അത് വേകും വെന്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കുറച്ച് വെള്ളം കൂടെ ഏഡ്ഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യുക അപ്പോൾ അപ്പോൾ നമ്മുടെ അത്താഴത്തിനുള്ളതും റെഡിയാവും അത്താഴത്തിന് ചിക്കൻ കറി മാത്രമേ ഉണ്ടാവുള്ളൂ ഉച്ചയൂണിനും മീൻ കറി മാത്രമേ ഉണ്ടാവാറുള്ളൂ